ഞാൻ ആട് ജീവിതം എന്ന നോവലാണ് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല വളരെ നല്ല അഭിപ്രായമാണ് ഒരു പ്രവാസിയുടെ മോനെന്ന നിലയ്ക്ക് ഈ ആട് ജീവിതം എന്ന നോവൽ എന്നെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട് പ്രവാസ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് എത്രയാണ് എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ ഈ നോവൽ വായിച്ചതോടെ എനിക്ക് ഒന്നു കൂടി മനസ്സിലായി പിന്നെ അത് മാത്രമല്ല ഇപ്പം ആട് ജീവിതം നോവലിപ്പം ഒരു സിനിമയായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ ഈ നോവല് വായിച്ചതിന് ശേഷം ഈ സിനിമ കാണുമ്പോഴുള്ള അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി മനസ്സിലാവും പിന്നെ ഈ ഈ നോവൽ വാങ്ങിയത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വായിക്കാൻ കൊടുക്കാനും മറ്റുള്ളവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് കൊടുക്കാനും എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് ഈ നോവല് നല്ല ഒരു വളരെ മികച്ച ഒരു നോവലാണ് ഇതിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം കഷ്ട്ടം ഓരോ പ്രവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അതെല്ലാം നോവലിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ നോവല് ആയ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി കൂടുതൽ ഇതേ പോലത്തെ പ്രോഡക്റ്റ് വാങ്ങാൻ ഞാൻ നല്ലോണം നോക്കും